ഞാൻ ഏഴ് മണിയായപ്പം ഇവിടെ റെഡിയായിട്ട് ഇരിക്കുന്നെയാണ് എനിക്ക് എട്ടിന് പോയി രക്തം പരിശോധിക്കണ്ടിയതാന്ന് ഞാൻ നിങ്ങളെ ഇന്നലെ നേരത്തെ പറഞ്ഞ് ബുക്ക് ചെയ്തതല്ലേ ഇതിപ്പം രണ്ട് മണിക്കൂർ മണി ഒൻപതാകുന്നു ഞാൻ എത്ര നേരായിച്ചാ നോക്കിയിരിക്കുന്നത് എന്നാ വരികേലന്നുണ്ടെങ്കിൽ വരികേലന്ന് പറയാ അല്ലെങ്കിൽ വേറെ എവിടേലും ഒരോട്ടമോ വല്ല കാര്യ കിട്ടീട്ടൊണ്ടായിരുന്നെങ്കിൽ വേറെ ഒരോട്ടോക്കാരനെ പറഞ്ഞ് വിടുവോ എന്തേലും ചെയ്യാണ്ടായിരുന്നോ ഞാൻ വേറെ ആരേം വിളിക്കത്തൂല്ല നിങ്ങളെ മാത്രല്ലേ വിളിക്യേം ചെയ്യത്തൊള്ളു ഇപ്പം ഇന്നിപ്പം ഇപ്പം ഇനിപ്പം ഒൻപത് മണിയായില്ലേ എനിക്ക് കഴിക്കാതെയോ എടുത്തിട്ട് വന്നിട്ട് വേണം പിന്നെ കഴിച്ചിട്ട് പിന്നെ രണ്ട് മണിക്കൂറിൻ്റെ വീണ്ടും എടുക്കാൻ പോകണ്ടിയതല്ലേ എല്ലാകാര്യങ്ങളും അറിയാവുന്നതല്ലേ ഇപ്പം ഈ രണ്ട് മൂന്ന് മണിക്കൂറന്ന് പറയുമ്പഴ്ത്തേന് ഇനി ഞാൻ പോയി എടുത്തിട്ട് ഇനി എപ്പോഴാണ് എപ്പോഴാണ് ഇനി അടുത്ത രണ്ടാമത്തെ രക്തം എടുക്കാൻ പോകാൻ നേരം പോകും നിങ്ങൾ എങ്ങനെയാണ് എപ്പോഴ്ത്തേനാ വരൂവെന്നുള്ളൊരു കാര്യം പറയുവോ അല്ലെങ്കിൽ വേറെ ആരേലും ഒന്ന് പറഞ്ഞ് വിടുവോ എന്നേലും ഒന്ന് ചെയ്യാനായിട്ട് പറ്റുവോ ഇപ്പം വിളിച്ചിട്ടുണ്ട് ഞാനിപ്പം എത്ര പ്രാവശ്യത്തെ വിളിയായി എന്നതാന്നൊരു കറക്റ്റ് കൃത്യമായിട്ട് എന്തേലും ഒരു കാര്യം പറയുവോ എടുക്കുവോ ചെയ്താലേ എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുവൊള്ളു അതിൽ ഞാൻ അല്ലെങ്കിൽ പിന്നെ പോകുന്നില്ലാന്ന് വെക്കണം എന്താ നിങ്ങടെ ഭാഗത്തുന്നുള്ള കാര്യന്നൊന്ന് തെളിച്ച് പറയുക